ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് ഓക്കെ ഓക്കെ താങ്കൾ എവിടെയാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്യുന്നത് ആ ഡൽഹി ആണ് പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെ ആണോ ഡൽഹി തന്നെ ആണോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടത്തെ കൾച്ചറും പുത്തൻ ഫുഡ്സും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് ആണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ എന്നത്തേക്ക് ആയിരിക്കും വരുന്നത് ആ കേരളം ആ കേരളത്തിലേക്ക് വന്ന് നമ്മൾ ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ ടെമ്പിൾസും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേയ്സസും ഒക്കെ ഉണ്ട് കേട്ടോ മൂന്നാർ വാഗമൺ ഓ അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ ഏരിയ ആണോ പ്രിഫെറ് ചെയ്യുന്നത് ഓക്കെ ആ അങ്ങനത്തെ നമ്മളെ നമുക്ക് അങ്ങനത്തെ ഉള്ളത് ശബരിമല നമ്മളെ തൃശ്ശൂർ ടെമ്പിള് അതുപോലെ തന്നെ ഏറ്റുമാനൂർ ഗുരുവായൂർ അങ്ങനെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസാണ് പക്ഷെ അതും സീസണൽ ആയിട്ടാണ് അവിടെ ഉത്സവവും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് അപ്പം സാർ അത് അനുസരിച്ച് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനും എക്സ്പ്ലോറ് ചെയ്യാനും പറ്റുകയുള്ളൂ ഓക്കെ ശബരിമലയിൽ ഇപ്പോൾ വിഷ്വല് വിഷ്വൽ മാസ്റ്റേഴ്സ് ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ പിന്നെ ഗുരുവായൂർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി കണ്ട് എടുത്തിട്ടൊക്കെ വരാൻ പറ്റും ആ അല്ലാതെ ആ ഉത്സവമായിട്ടും അങ്ങനെ എല്ലാവരും അങ്ങനെ ഉള്ള ഒരു ഫെസ്റ്റിവൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ സീസണലാണ് അങ്ങ് അങ്ങനത്തെ ആ രണ്ട് മാസമോ ആ രണ്ട് മാസത്തിൽ ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും ആ ഫെസ്റ്റിവ് ഉണ്ടെങ്കിൽ ഞാൻ ചാർട്ട് ചെയ്ത് വാട്ട്സ്ആപ്പിൽ അയച്ചേക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ആ വാട്ട്സ്ആപ്പിൽ അയച്ചേക്കാം ഇറ്റ്സ് ഓക്കെ താങ്ക് യു